ഇന്ത്യയുടെ തെക്കേ അറ്റത്തു കിടക്കുന്ന കേരളം അതിന്റെ തനതായ കലകള് വളരെ പേരു കേട്ടതാണ് ഇവിടുത്തെ സാംസ്കാരിക വൈവിധ്യവും ഇവിടുത്തെ കലകളെ സന്തുഷ്ടമാക്കുന്ന വടക്കന് മലബാറിന്റെ തെയ്യം തെക്കന് മലബാറിലെ തിറയാട്ടം മധ്യ തിരുവിതാംകൂറിലെ പടയണി എന്നിവ തനതുകലകളില് പ്രധാനപ്പെട്ടവയാണ് പിന്നെ പിന്നെ ഹിന്ദൂ കലാരൂപങ്ങളായ കഥകളി മോഹിനിയാട്ടം കൃഷ്ണനാട്ടം കൂടിയാട്ടം കേരളാനടനം അങ്ങനെയങ്ങനെ ഒരുപാട് തെയ്യം അങ്ങനെ ഒ ഒരുപാട് കലകള് കലാരൂപങ്ങള് കേരളത്തിനു സ്വന്തമായിട്ടുണ്ട് കേരളത്തിന്റെ തനതായ ദൃശ്യ കലാരൂപമാണ് കഥകളി രാമനാട്ടമെന്ന കലാരൂപം പരിപുഷ്ടി പരിപുഷ്ടിപ്പിച്ച് കഥകളി ഉണ്ടായതാണ് കഥകളിയിലെ പ്രധാന കഥാപാത്രങ്ങളാണ് പ്രധാനമായും പച്ച കത്തി കരി താടി മിനുക്ക് എന്നിങ്ങനെയൊക്കെയുള്ളത് വേഷങ്ങളാണ് അവതരിപ്പിക്കുന്നത്

കഥകളിയെപ്പറ്റി മാത്രമല്ല കേരളത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കലാരൂപമെന്നു പറഞ്ഞാല് അതു മോഹിനിയാട്ടമാണ് കേരളത്തിന്റെ തനത് ലാസ്യ നൃത്ത കര രൂപമാണ് നാട്യശാസ്ത്രത്തില് വളരേ പ്രധാനപ്പെട്ട വളരെയധികം പ്രതിപാദിക്കുന്ന ചുവര് വൃത്തികളും ലാസ്യ ലാവണ്യ സമ്പന്നമായ കൈശി വൃത്തികളും ഊ ഊന്നിയ ചലനങ്ങളാണ് മോഹിനിയാട്ടത്തിന്റെ മുഖമുദ്ര ഭാരതി ആരഭടി സ്വ സാത്വന്ധി എന്നിവയാണ് മറ്റു മൂന്നു വൃത്തികള് അങ്ങനെ മലയാളത്തിൽ വളരെ പ്രധാനപ്പെട്ട രണ്ടു കലാരൂപങ്ങളാണ് കഥകളിയും മോഹിനിയാട്ടവും മോഹിനിയാട്ടത്തില് പൊതുവെ ഒരു സ് കസവ് സാരിയുടുത്ത് കസവ് സാരി വേഷം വിദാനമാണ് മോഹിനിയാട്ടത്തിന്റെ വളരെ പ്രധാനപ്പെട്ടത് മുടി ഒരുവശത്തേക്ക് കോതി വെച്ച് അതില് മുല്ലപ്പൂ ചാര്ത്തി ആണ് ഈ ഒരു മോഹിനിയാട്ടമെന്ന കല അതിനു കുട്ടികൾ നൃത്തമാടുന്നത് മാത്രമല്ല മോഹിനിയാട്ടത്തിനു പറയുകയാണെങ്കില് ഒരുപാട് ഓ ഒരുപാട് അത് പു പുറത്തേക്കു വരുന്നത് മുഖം കൊണ്ടുള്ള ഉള്ളൊരു കലയാണ് ഒരുപാട് എക്സ്പ്രഷന്സും മാറിമാറി വരേണ്ടയൊരു കലയാണ് മോഹിനിയാട്ടം എന്നു പറഞ്ഞാല് മോഹിനിയാട്ടത്തിനു കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കലാരൂപം കൂടെയാണ്